തീർച്ചയായും നല്ല വൈദ്യ സഹായം കിട്ടുന്നതിന് ദാരിദ്ര്യം ഒരു തടസ്സം തന്നെയാണ് എന്തെന്ന് വെച്ചാൽ ഈ ഗ്രാമപ്രദേശത്ത് ഉള്ളവർക്കും ദരിദ്രർ ആയവർക്കും മികച്ച ചികിത്സ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രാമപ്രദേശത്തുള്ള സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ സൗകര്യത്തിൻ്റെ അഭാവം ഇതിനുള്ള പ്രധാന കാരണം ഇവർക്ക് മികച്ച ചികിത്സയ്ക്കു വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രികളെയോ നഗരങ്ങളിലുള്ള ആശുപത്രികളെയോ ആശ്രയിക്കേണ്ടതായി വരും അതൊരുപാട് ചിലവേറിയ കാര്യം തന്നെയാണ് അത് അതു തന്നെയാണ് ഇതിന് ഇവർക്കുള്ള പ്രധാന ബുദ്ധിമുട്ട് മികച്ച ചികിത്സയ്ക്ക് കൂടുതൽ പൈസ ചിലവ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിൽ ഗ്രാമപ്രദേശത്തുള്ള സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ സൗകര്യങ്ങൾ ഒരുക്കുക പിന്നെ ചിലവ് കൂടിയ ചികിത്സയ്ക്ക് ധന സഹായങ്ങളോ സൗജന്യ ചികിത്സയോ എല്ലാം ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഇത് വളരെ പ്രയോജനകരമായിരിക്കും ഇവരെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനകരമായിരിക്കും